മലബന്ധം ഭേദമാക്കാനായിട്ട് ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ പ്രചാരത്തിലൊള്ള കുറച്ച് നാട്ട് വൈദ്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ ധാരണയില്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഇത് വരാതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വരാതെ നോക്കാനായിട്ട് പറ്റും അതായത് നമ്മൾ നല്ല രീതിയിൽ എക്സസൈസുകളൊക്കെ ചെയ്യുക അതേപോലെ തന്നെ ഭക്ഷണത്തിലാണ് നമ്മളേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഭക്ഷണത്തിൽ എന്ന് പറയുമ്പോൾ നമ്മളധികമായിട്ട് വെള്ളം കുടിക്കണം ഈ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് അപ്പം വെള്ളം വളരെ അധികം നന്നായിട്ട് കുടിക്കുക തന്നെ ചെയ്യണം പിന്നെ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വളരെ അധികം ഫൈബറുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും ഉൾപ്പെടുത്തണം അതേപോലെ തന്നെ കുറേ പച്ചക്കറികളും അതേപോലെ തന്നെ ഫ്രൂട്ട്സും നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഓരോ ദിവസത്തെ ഭക്ഷത്തിൽ ഭക്ഷണത്തിലും നമ്മളത് ഉൾപ്പെടുത്തുമ്പോൾ അത് അത്രയും നല്ലതായിരിക്കും എന്ന് തന്നെയാണ് വേണ്ടത് പിന്നെ ഇൻ കേസ് നമ്മൾക്ക് പിന്നെന്താണ് കുറച്ച് കുഞ്ഞ് കുഞ്ഞ് നാട്ടു വൈദ്യങ്ങൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോഫി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കിവി ഫ്രൂട്ട് പിന്നെ മാഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണമായാലും അതേപോലെ തന്നെ അതിൻ്റെ സപ്പ്ളിമെന്റ്സ് ആയാലും എടുക്കാമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല പ്രത്യേകമായിട്ടും നമ്മൾ വരാതെ നോക്കാനായിട്ട് ഭക്ഷണത്തിൽ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് വെള്ളവും അതെപോലെ തന്നെ എക്സസൈസും അതേപോലെ തന്നെ നമ്മൾ ഭയങ്കര ആക്ടിവ് ആയിട്ട് ഇരിക്കുന്ന ഒരു അതും ഇതിൽ ഞാൻ കേട്ടിട്ടുണ്ട് ആ പിന്നെ പച്ചക്കറികളും അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഇത്രയും കാര്യങ്ങൾ നല്ല ഫൈബർ ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെയും നന്നായി കഴിക്കുവാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാ ഒഴിവാവാനായിട്ട് സാധിക്കും